ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗതാഗത സംവിധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നിട്ടു വരുന്ന ഒരു ഗതാഗത സംവിധാനമാണ് കാരണമെന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ റോഡുകളും നല്ല രീതിയിൽ ഡെവലപ്മെൻറ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ അതായത് മലയോര പ്രദേശങ്ങളിലൊക്കെയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഹൈവേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് മാറിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ മിഷ്യൻസ് എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളെ വീടിൻറെ സൈഡിൽക്കൂടി തന്നെയാണെങ്കിൽ മലയോര ഹൈവേ അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഗതാഗതം മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാരാണെങ്കിലും ഇപ്പോൾ ഏത് സർക്കാരാണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻ്റാണെങ്കിലും കേരള ഗവൺമെൻ്റാണെങ്കിലും അതിനെതിരെ നല്ല രീതിയിലുള്ള മെച്ചപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളീ കോൺട്രാക്ടർമാരെ എടുക്കുന്ന അവരാണ് ഈ എന്താ പറയുക ഇപ്പോൾ നല്ല രീതിയിലൊന്നും പണിയെടുക്കാത്തത് ഇപ്പം സർക്കരാണെങ്കിലും ശരി സർക്കാർ ഇപ്പോൾ ഇത്രയും കോടി രൂപ ഇതിനകത്ത് എന്ന് കിട്ടിക്കഴിഞ്ഞാലതിനകത്ത് നിന്ന് പകുതി സർക്കാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ടീംസൊക്കെ എടുത്ത് എടുത്ത് കഴിഞ്ഞതിനുശേഷം മാത്രമേ ഈ കോ കോൺട്രാക്ടർക്കെടുക്കാൻ പറ്റുകയുള്ളൂ ആ കോൺട്രാക്ടർ ആ ഒരു രൂപ വെച്ചിട്ടാണ് ഈ പണി മൊത്തം എടുക്കുന്നത് അപ്പം അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പണി കാഴ്ചവയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം കോൺട്രാക്ടർമാരെ തെറ്റുപറയാൻ പറ്റില്ല നമ്മുടെ സർക്കാരിനെയും തെറ്റു പറയണം അപ്പോൾ ഇതൊക്കെ ഒരു അതായത് റോഡ് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകളും എല്ലാ കാര്യങ്ങളും കൂടുതലാണ് അപ്പോൾ അതൊന്ന് മെച്ചപ്പെടുത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റോഡ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി സാ സാധിക്കുന്നതാണ്